ഞാന് ചെറുപ്പത്തിൽ പറശ്ശിനിക്കടവ് അമ്പലത്തിലാണ് പോയിട്ടുള്ളത് മുത്തപ്പന് കാവ് അതിനാണ് ഞാന് പോയിട്ടുള്ളത് അവിടെ മുത്തപ്പന്റെ കളിയാട്ട് ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് അവിടെ കുറേ പരിപാടികളുണ്ട് അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് രാത്രി അവിടെ നിന്ന് പിന്നെ വെറും നായ്ക്കളാണവിടെ ഇഷ്ടംമാതിരിയുണ്ട് നായ്ക്കൾ പിന്നെ പുഴയുണ്ട് അടുത്തു തന്നെ അമ്പലത്തിന്റെ അടുത്തു തന്നെ പുഴയാണ് അപ്പോൾ എന്ന് കുളിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം നേരെ പോന്നു പാമ്പുംകാവിലേക്ക് അവിടെ നിന്ന് കുറേ പലതരം പാമ്പുകൾ മുതല കുരങ്ങന്മാർ പിന്നെ വലിയ വലിയ മലമ്പാമ്പ് അങ്ങനെയുള്ള പാമ്പുകളെയൊക്കെ കണ്ടു ചേര ചേരയുണ്ടായിരുന്നു ചേരേനെ തൊട്ടാൽ തണുപ്പാണെന്നു പറഞ്ഞിട്ട് അതിനെ എല്ലാവരും ഓരോന്നു തൊട്ടുനോക്കി പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ പാലക്കാട്ടേക്കു പോന്നു പാലക്കാട് പോന്നിട്ട് അവിടെ നിന്നിട്ട് മലമ്പുഴ മലമ്പുഴ വന്ന് അവിടെ അവിടെ നിന്ന് കുട്ടികള്ക്കുള്ള കളിക്കാനുള്ളതു കൊണ്ട് തോണി പിന്നെ ഊഞ്ഞാൽ അങ്ങനെ പലതരം അവിടെയുണ്ട് പിന്നെ വലിയൊരു മീനുണ്ട് ആ മീനെ മീനിനെ കണ്ടു പിന്നെ റോഫെല് ഉണ്ട് അതിലൊക്കെ കയറി അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നേരെ കൊച്ചിയിലേക്കാന്ന് പോയത് കൊച്ചീന്ന് അവിടെ എന്താ മാതാ അമൃതാനന്ദമയി അതിന്റെ അതിന്റെ അവിടെക്കാണ് ഞങ്ങള് പോയത് അവിടെ നിന്നു പോയിട്ട് അവിടെ നിന്ന് അമ്മേൻ്റെ ദര്ശനം കിട്ടാൻ കുറേ നേരം ഇരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ച് അവിടെ റൂമൊക്കെ ഉണ്ടായിരുന്നു റൂമൊക്കെ എടുത്ത് ഞങ്ങളവിടെ ഇരുന്ന് പിന്നെ അമ്മേന്റെ ദര്ശനം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട് പക്ഷെ ജനങ്ങളെ കൊണ്ട് ഞങ്ങള്ക്ക് കുറേ നേരം വൈകിയിട്ടാണ് കിട്ടിയത് ഒരു എട് പത്തുമണിയൊക്കെ ആയിട്ടുണ്ടാകും ഞങ്ങള്ക്ക് ദര്ശനം കിട്ടിയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ കടൽ കാണാന് പോയി കടലു കണ്ട് പിന്നെ അപ്പുറത്ത് കടലും ഇപ്പുറത്ത് കായലും അതൊക്കെ കണ്ട് പിന്നെ അമ്മ ധ്യാനത്തിനിരിക്കുന്ന സ്ഥലം കണ്ടു അതൊക്കെ കണ്ട് പിന്നെ ഞങ്ങള് അവിടെ നിന്ന് ബസ്സിൽ നേരെ തിരിച്ചു കേ കയറി പിന്നെ എറണാകുളം എറണാകുളം വന്ന് അവിടെ നിന്ന് ഞങ്ങള് അവടെ കുറേ ബീച്ചും പാര്ക്കും ഒക്കെയുണ്ട് അതൊക്കെ കണ്ട് പിന്നെ എറണകുളത്ത് ഇതുണ്ട് എന്ത് വിമാനത്താവളം അതൊക്കെ കണ്ട് അതിൽ കയറണതും ഇറങ്ങണതും പഠിപ്പിക്കണതും ഒക്കെ കണ്ട് അതൊക്കെ കണ്ട് അങ്ങനെ ബീച്ചിലൊക്കെ പോയി അവിറ്റെ നിന്ന് അങ്ങനെ പോന്ന് പിന്നെ പുട്ടപ്പരത്തി സായി ബാബാനെ കാണാന് പോയി അവിടെ നിന്ന് അവിട് അവിടേക്ക് പോയന്ന് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പിയെ ഉള്ളു ഒരു ബസ് ആള്ക്കാരാണ് അവിടേക്ക് പോയത് അതിൽ അവിടെ നിന്ന് രാവിലെ എല്ലാവരും പോയി സായിബാബനെ കണ്ടു പോന്നു അപ്പെല്ലാവരും പറഞ്ഞു ഇന്ന് നിങ്ങൾ സായി ബാബാനെ കാണില്ല നാളെയേ കാണുള്ളൂയെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത്രയും ദൂരത്തുനിന്നു ഞങ്ങൾ വന്നിട്ട് ഞങ്ങള്ക്ക് കാണാന് പറ്റില്ല എന്ന് പറയാന് പറ്റില്ല നമുക്കെല്ലാവര്ക്കും പോകാമെന്നു പറഞ്ഞിട്ട് എല്ലാവരും പോയി അവിടങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് സായിബാബ ഇറങ്ങി ഇങ്ങനെ വരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടു എല്ലാവര്ക്കും ദര്ശനം വാങ്ങി എല്ലാവർക്കും മുട്ടായി ലെഡു എല്ലാവര്ക്കും കിട്ടി അതുകഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് അവിടെ വേറെ ഒരമ്പലം ഉണ്ട് അമ്പലത്തിലേക്കു പോന്നു അതുവരെ ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസം പിടിച്ചിട്ടുണ്ടവിടെ കുട്ടപ്പരത്തിയിൽ നിൽക്കാൻ അവിടെ നിന്ന് ധ്യാനവും പിന്നെ അതേമാതിരി യോഗ അതൊക്കെ കണ്ടിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുള്ളത് പിന്നെ അവിറ്റെ നിന്നു നേരെ വേറൊരു അമ്പലം ഉണ്ട് ആ അമ്പലത്തില് പോയിട്ടാണ് ഞങ്ങൾ പോന്നിട്ടുള്ളത് പിന്നെ നേരെ ഗുരുവായൂർ വന്ന് ഗുരുവായൂർ അവിടെ വന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കാണ് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറാനൊന്നും എന്താ പറ്റണില്ല ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് എന്താ അവിടെ നിന്ന് ഞങ്ങളെന്തെയ്തു നമുക്ക് എന്താ തൊഴുതിട്ട് പോകുകയെന്നു പറഞ്ഞിട്ട് അവിടെ എല്ലാവരും നിന്ന് തൊഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെത്തന്നെ ഉണ്ട് ഭക്ഷണം അമ്പലത്തില് തന്നെയുണ്ട് ഭക്ഷണം അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ സാധനങ്ങളൊക്കെ വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് ചിലർ അപ്പം പലതും പലതുണ്ട് അവിടെ സാധനങ്ങൾ അതൊക്കെ വാങ്ങി ഓരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തർ വാങ്ങി നേരെ അവിടെനിന്നും ഞങ്ങള് പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങൾ നേരെ പോന്നത് ഡല്ഹി ഡല്ഹിക്കാണ് പിന്നെ പോണത് ഡല്ഹിക്ക് പോ പോണേന്റെ മുൻപേ ഞങ്ങളോടു പറഞ്ഞു ഡല്ഹിക്ക് പൊ ഓരോരുത്തര്ക്കും പതിനായിരം രൂപ വേണം ഡല്ഹിക്ക് പോകാൻ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കേ അതേപോലെ ഞങ്ങള് പത്ത് ആള്ക്കാരുണ്ടായിരുന്നു പത്ത് ആള്ക്കാരും ഓക്കേ പറഞ്ഞു ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഡല്ഹി പോയി ഡല്ഹിക്കല്ല ഞങ്ങൾ നേരെ കരിപ്പൂർ പോയിട്ട് അവിടെനിന്ന് വിമാനത്തിലാണ് പോയത് അവിടെ നിന്ന് വിമാനത്തില് പോയി അവിടെ കുറേ അമ്പലങ്ങളും കുറേ സ്ഥലങ്ങള് ഞങ്ങള് കണ്ട് ബീച്ചും ഒക്കെ കണ്ടു അവിടുത്തെ ഭക്ഷണങ്ങൾ മോശമാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ പാനി പൂരി ചപ്പാത്തി പിന്നെ പരിപ്പ് കറി പച്ചരി ചോറ് ഇതൊക്കെയാണ് അതൊക്കെ ഫ്രീയായിട്ട് ഞങ്ങള്ക്ക് കിട്ടി എന്തുകൊണ്ടെന്നു വെച്ചാൽ അവിടെ ഒരു ആശ്രമം ഉണ്ട് ആ ആശ്രമത്തിലെ ആള്ക്കാർ പറഞ്ഞു നിങ്ങൾ നേരത്തിന് ഇവിടെ വന്നാല് മതി നിങ്ങള്ക്ക് ഭക്ഷണം ഇവിടെ നിന്നു തരും അതുകൊണ്ട് പുറത്തു നിന്ന് കഴിക്കണ്ടയെന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് അത് വരുന്നവർക്കൊക്കെ മൊത്തം എല്ലാവര്ക്കും കൊടുക്കണുണ്ട് അവിടെ നിന്ന് ഭക്ഷണം രാവിലങ്ങട്ട് ഒരു പത്തുമണിക്ക് വിളമ്പല് തുടങ്ങിയാൽ ഒരു അഞ്ചു മണി ആറു മണി വരെ വിളമ്പി കൊടുക്കുന്നുണ്ട് അതും ഇതു തന്നെ പച്ചരി ചോറു വേണ്ടവര്ക്ക് പച്ചരി ചോറ് പരിപ്പ് കറി അതിലേക്ക് വേറൊരു കൂട്ടുകറി പിന്നെ അതേപോലെ ചപ്പാത്തി ചപ്പാത്തിക്കും തന്നെ ഒരു കൂട്ടുകറി പരിപ്പുകറി അതും വേണ്ടവര്ക്ക് കഴിക്കാം ചിലര്ക്ക് പറ്റു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഞാന് പച്ചരി ചോറ് മാത്രം കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങള് നേരെ ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ കയറി ഞങ്ങൾ റയില്വേയിൽ മെട്രോ തീവണ്ടിയിൽ നേരെ ഡല്ഹിക്ക് വന്നു ഡല്ഹിയിൽ വന്നപ്പോഴേക്ക് ഞങ്ങളുടെ പ്ലെയിന് പോയിയെന്നു പറഞ്ഞു പോയിയെന്നു പറഞ്ഞപ്പോൾ ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു ഞങ്ങള്ക്ക് എന്നാലും ഞങ്ങള് പിറ്റേ ദിവസം അതെ സമയത്തു തന്നെ അവിടെയുള്ള എല്ലാ എന്താ ഇന്ത്യന്റെ എന്താ ലാസ്റ്റ് ഗേറ്റ് അതും കണ്ടു പിന്നെ അവിടെ ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു അതു കണ്ടു പിന്നെ അങ്ങനെ ഡല്ഹിയിലുള്ള എല്ലാ ഇതും കണ്ടു ഞങ്ങൾ പിറ്റേ പിറ്റേ ദിവസം ആറെ മുപ്പതിന് ഉള്ള പ്ലെയിനിനാണ് ഞങ്ങളിവിടെ തിരിച്ച് എത്തിയത് അതുവരെ ഞങ്ങള് അവിടെ ചുറ്റി കറങ്ങി എല്ലാതും കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി പക്ഷെ വില കൂടുതലാണവിടെ എന്നാൽ പിന്നെ നമ്മുടെ നാട്ടിലാണ് വില കുറവ് ബേഗിനൊക്കെ ഭയങ്കര വില ചായക്കൊക്കെ നൂറ് രൂപ കൊടുക്കണം രണ്ടു റുപ്പ്യൻ്റെ ചായ അതിന്റെ ഉള്ളില് ഉണ്ടെന്ന് പറഞ്ഞു അത് ഞങ്ങള്ക്ക് അറിയില്ലായിരുന്നു എന്നാലും ഞങ്ങള് നൂറുപ്യ ഒന്നും കൊടുക്കാതെ പത്തു ഉപ്പ്യക്കുള്ള ചായ തന്നെ ഞങ്ങള് അവിടെ നിന്നു കഴിച്ചത് പിന്നെ ഭക്ഷണത്തിന് ഭയങ്കര ക്ഷാമം തന്നെയാണ് അവിടെ അതു കഴിഞ്ഞ് ഞങ്ങൾ പ്ലെനില് കയറി ഇവിടെ കരിപ്പൂര് വന്ന് ഇറങ്ങി തിരിച്ച് പോന്നു